ഞങ്ങൾ സാധാരണ എടുക്കല് കാണാൻ ഭംഗിയുള്ള ഫോട്ടോകളൊക്കെയാണ് നമ്മളെടുക്കല് നമ്മുടെ മനുസന്മാരുടെ ഫോട്ടോയാണ് സാധാരണ നമ്മള് എടുക്കല് പിന്നെ ആവശ്യം വന്നാല് നമ്മള് പൂക്കളുതും ജന്തുക്കളുതും അതുപോലെ സ്ഥലങ്ങള് ഫോട്ടോ ഒക്കെ നമ്മള് എടുക്കലുണ്ട് എന്നാലും കഴയറ്റം എടുക്കല് നമ്മുടെ ഫോട്ടം തന്നെയാണ് അതു നമ്മള് കുടുംബക്കാരെയൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കും അതേപോലെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോള് ഈ വിനോദസഞ്ചാരത്തിന് നമ്മള് പോകുമ്പോൾ അവിടെയുള്ള ഓരോ സംഭവങ്ങളും ഈ പുരാതന വസ്തുക്കളൊക്കെ നമ്മള് ഫോട്ടോ എടുക്കലുണ്ട് ഇതൊക്കെ നമ്മൾ എടുത്തൊണ്ടൊരു ആൽബത്തില് കൊണ്ടയ്ക്കും ഈ ഫോട്ടങ്ങളക്കെ നമ്മള്ക്കൊരു അയവിറക്കാനുള്ള സാധനമാണല്ലോ അപ്പോള് നമ്മള് പഴയ ഫോട്ടങ്ങള് കണ്ടാൽ ആ പഴയ ഫോട്ടം കേടുവരുമെന്നു കണ്ടാല് നമ്മള് ഫോണിലൊരു ഫോട്ടം എടുത്തുവയ്ക്കും ആവശ്യം വരുമ്പോള് ട്രോളാന് പിന്നെ എൻ്റെ കയ്യിലുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് കൊടുത്തേക്കുന്ന ഒരു സാധനം ഫോട്ടോയെടുത്ത് ഫോട്ടോയെടുത്ത് ഫോട്ടോയെടുത്ത് ആ ഫോണിലിപ്പോള് സ്പേസില്ല എല്ലാരുടെയും ഫോട്ടോ അതിലുണ്ട് പഴയ കാലത്തേതും പുതിയ കാലത്തേതും മാണ്ടിയതും മാണ്ടാത്തതൊക്കെയുണ്ട് കാര്യമായിട്ട് ഈ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റയിലൊക്കെപ്പാട് ഇട്ടിട്ട് നിറച്ച് വച്ചേക്കാണ് പിന്നെ ഈ ഫോട്ടോ ഒക്കപ്പാടെ നമുക്കൊരു വലിയൊരു പ്രശ്നമായിട്ട് അത് വരുന്നുണ്ട് അത് ഞമ്മളെ ബെർത്ത് ഡേയ്ക്കാണ് വരാനുള്ളത്